ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി ആയിരുന്നേ ആ കാലാവസ്ഥ മോശം ആണ് പക്ഷെ ഞങ്ങളിപ്പോൾ ഒരു ട്രിപ്പ് വന്ന ആയിരുന്നേ അപ്പം ഞങ്ങൾ ആകെ കുടുങ്ങി പോയി ഇവിടെ മഴയും ആണ് അപ്പോൾ നമുക്ക് വേറെ ഒരു കടയും ഓപ്പണും അല്ല വെള്ള പൊക്കവും കാര്യങ്ങളും ഒക്കെ അപ്പം നിങ്ങളെ ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് എങ്ങാനും കിട്ടാനുള്ള ഉള്ള സാധ്യത ഞങ്ങളോട് അവര് മുപ്പത്തഞ്ചു പേരുണ്ട് നമ്മള് ബസില് വന്നവരാ അപ്പം എവിടെ നോക്കിട്ടും ബസ് ഡ്രൈവറു നിർത്തിട്ടൊന്നും ഇവിടെ ഒരു ഫുഡ് അതായത് ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങളൊന്നും കാണുന്നില്ല അപ്പം അതിൻ്റെ ഒരു ടെൻഷനിലാ നമ്മള് വിളിച്ചത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശന്നിട്ട് ഞങ്ങള് രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല അപ്പം എവിടെങ്കിലും നിർത്താൻ പറ്റുമോ നിർത്താൻ പറ്റുമോ എന്നുള്ളൊരു പിന്നെ ഇതിലായിരുന്നു വിളിച്ചോണ്ടിരുന്നത് അപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും നിർത്താനും പറ്റി നിർത്താനും പറ്റുന്നില്ല നിർത്താൻ പറ്റിട്ടുള്ള സ്ഥലത്താണെങ്കി നമുക്ക് ഹോട്ടലുകളും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പോ ഫുള്ള് ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പ നിങ്ങള് എങ്ങനെങ്കിലും ഒന്ന് എത്തിച്ചു തരുവാണെങ്കിൽ ഭയങ്കര ഉപകാരം ആയിരുന്നു കാരണം ഞങ്ങക്ക് എങ്ങോട്ടും വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്ത് ഫുഡ് ആണെങ്കിലും കുഴപ്പമില്ല നമ്മള് പൈസയും വേണമെങ്കിൽ എത്രയാണെന്ന് വച്ചാൽ തരാം കാരണം വിശപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഏറ്റവും വലിയൊരു സംഭവം ആണല്ലോ അത് നിങ്ങൾ ഒന്ന് പെട്ടെന്ന് കൊണ്ട് തരികയാണെങ്കിൽ വളരെ ഉപകാരം ആയിരുന്നു പെട്ടെന്ന് ഒന്ന് കൊണ്ട് തരാൻ നോക്കുമോ ഓക്കെ താങ്ക്യു എന്നാൽ